ഈ നമ്മൾ ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ കോളേജുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ തീരെ കുറവായിരുന്നു പാരലൽ കോളേജുകളെയാണ് കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത് അതേ സമയം ഇന്ന് കോളേജുകളുടെ എണ്ണം കൂടി പക്ഷേ പഴയ നിലവാരത്തിൽ ആ കോളേജുകൾ എണ്ണത്തിന് അനുസരിച്ച് നിലവാരം വർദ്ധിക്കുന്നില്ല സർവകലാശാലകളുടെ എണ്ണം കൂടി ഈ സർവകലാശാലയുടെ എണ്ണം കൂടീട്ടും കോളേജിൻ്റെ എണ്ണം കൂടിയിട്ടും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ എന്തോ അപാകത ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ വിദേശ വിദ്യാഭ്യാസത്തെ അന്വേഷിച്ച് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നത് തന്നെയുമല്ല തൊഴിലവസരങ്ങൾ അവർക്ക് അവിടെ കൂടുതലായിട്ട് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ടു കൂടിയാണ്

നമ്മുടെ കോളേജുകളിൽ ഇപ്പോഴും പഴയ ബി എയും ബി എസ്സിയും ബി കോമും പഠിപ്പിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അതിൻ്റെ കാലം എത്രയോ മുൻപേ കടന്ന് പോയി ഭരണാഥിപന്മാർക്ക് ബുദ്ധി ഉദിക്കുന്നത് ഒരുപാട് വൈകിയാണ് അതുകൊണ്ടാണ് ഈ മാറ്റത്തെ പെട്ടെന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളേണ്ടുന്ന കാലഘട്ടത്തിൽ അത് ഉൾക്കൊണ്ടില്ല അന്ന് കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ്റെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തൂന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ അടിച്ച് തകർത്ത് നടന്നതിന് ശേഷം ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസത്തെയും വിദേശ സർവകലാശാലകളേം ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് എത്രയോ നൂറ്റാണ്ടുകൾ നമ്മൾ പിന്നിലേക്ക് പോകുന്നു ദശാബ്ദങ്ങൾ നമ്മൾ പുറകോട്ട് അടിച്ചിരിക്കുന്നു കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം ഏതെങ്കിലും ഒക്കെ നാട്ടിൽ പരീക്ഷിക്കപ്പെട്ട് തകിടം മറിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ചില സബ്സിഡികളുടെ പേരിൽ ചില ആനുകൂല്യങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിലേക്ക് കെട്ടി ഇറക്കുന്ന ചില കാഴ്ചകളുണ്ട് അപ്പോൾ അത് ഈ വിദ്യാഭ്യാസ രംഗം പരിഷ്കൃതമാകാത്ത കാലത്തോളം കുട്ടികളും മറ്റു പല മേഖലകളിലേക്ക് തേടിപ്പോവും ക്ലാസ് മുറികൾ അവർക്ക് രുചികരമല്ലാത്ത അല്ലെങ്കിൽ ആസ്വാദികരമല്ലാത്ത അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് മുറികൾ ബഹിഷ്കരിച്ച് ആസ്വാദികരമായ ഇടങ്ങൾ തേടിപോകും അതവരെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ നൂലാമാലകളിൽ കൊണ്ട് ചെന്ന് എത്തിക്കും അല്ലെങ്കിൽ അതിൻ്റെ പടുകുഴികളിൽ നി പതിക്കും അതിൽ നിന്ന് മോചനം കിട്ടി വരുമ്പോഴക്കും ഒരു പക്ഷേ ജീവിതം തന്നെ തകർന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന വഴികൾ അത് ആസ്വാദ്യകരമാകണം അപ്പം ഫലപ്രദമാകണം അവരുടെ ബുദ്ധിക്ക് വികാസം സിദ്ധിക്കുന്നതാകണം ഓരോ നിമിഷവും അദ്ധ്യാപകൻ്റെ മുഖത്ത് നല്ല ഗുരു മുഖത്തു നിന്ന് കിട്ടുന്ന ഓരോ അറിവും അവരുടെ ബൗധിക ശേഷിയെ ഒരു ഇഞ്ചെങ്കിലും വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ കോളേജുകളിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ വെറുതെ മുക്കിന് മുക്കിന് കോളേജുകൾ സ്ഥാപിക്കുക ഓരോ പഞ്ചായത്തിന് ഓരോ കോളേജുകൾ കൊടുക്കുക വിവിധ സമുദായങ്ങളെ അല്ലെങ്കിൽ സഭകളെ പ്രീതിപ്പെടുത്താൻ ഒരാൾ കൂട്ടത്തിന് അനുവാദികമായി മറ്റ് സമുദായങ്ങൾക്ക് കോളേജുകൾ അനുവദിക്കുക യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ സാമുദായിക പ്രീടനത്തിന് രാഷ്ട്രീയ പ്രീരണത്തിന് അങ്ങനെയുള്ള ജാതിമത ചിന്തകൾക്ക് ഒക്കെ അധീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് കാണുക ഈ സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റി പഠിപ്പിക്കുമ്പോഴും നാരായണ ഗുരുവിനെപ്പറ്റി പലപ്പോഴും പറയും നാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി സാമൂഹിക പരിഷ്കർത്താവാണ് ഇത്രയും കാര്യങ്ങളെ പറ്റി ഒക്കെ പറയുമ്പോൾ ശരിക്കും തമസ്കരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് ചാവറ അച്ഛൻ ചാവറ കുരിയാകോസ് ഏലിയാസ് അച്ഛൻ അദ്ദേഹത്തെ പറ്റി പഠിപ്പിക്കാൻ ഒരിക്കലും കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർതാക്കൾ അല്ലെങ്കിൽ ആധുനിക കേരളത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരിക്കലും അവതരിപ്പിക്കാൻ കേരള ചരിത്രം മെനക്കെടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ ചരിത്രം പോലുള്ള കാര്യങ്ങളൊക്കെ കോളേജുകളിൽ ഒക്കെ പഠപ്പിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചരിത്രം മാത്രമാണ് പഠിപ്പിക്കുക നമുക്ക് ഗുണകരമായ വിധത്തിലുള്ള ചരിത്രം മാത്രം പഠിപ്പിക്കുന്നതിലാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് അതിന് മേലുള്ള ഒരു ചരിത്രവും ചരിത്രമല്ല എന്നുള്ള രീതീലേക്കാണ് പോവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആർട്സ് ആൻ സയൻസ് കോളേജുകൾ മുട്ടിന് മുട്ടിന് സ്ഥാപിക്കുകേം കാലാനുസ്രതം അല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ടുവരികേം ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകിടം മറിക്കാനാണ് ഉപകരിക്കുക